ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരു വരയ്ക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വര മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു ടീച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ സാറുമായിട്ടൊക്കെ റെഡിയാവുകയാണെങ്കിൽ കൂടുതലായിട്ടും അങ്ങനെ പോയിട്ട് അതായത് ഓഫ്ലൈൻ ആയിട്ടൊക്കെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വരയും കാര്യങ്ങളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടീട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇപ്പോഴത്തൊരു കാലഘട്ടമായതുകൊണ്ട് നല്ല രീതിയിലുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ച മൂലം നമുക്ക് ഫോണിലൂടെയാണെങ്കിലും നമുക്കിപ്പോൾ വരയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം യൂട്യൂബ് ചാനൽ ഉണ്ട് പിന്നെ അല്ലാണ്ട് ഉള്ള വരയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലുള്ള പല രീതിയിലുള്ള ആൾക്കാര് ഇങ്ങനെ വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട് നമുക്ക് അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള വരയും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് അങ്ങനെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്